ഹലോ എനിക്ക് എനിക്ക് ഒരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണം വൺ വേ ഫ്ലൈറ്റ് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്നൊക്കെ അറിയേണ്ടതായിട്ടുണ്ടായിരുന്നു അപ്പോൾ വൺ വേ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യേണ്ട ഇതെങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല ഹ്രസ്വ യാത്ര ആസൂത്രണം ചെയ്യുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒരു വൺ വേ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യേണ്ടത് ന്യൂയോർക്കിൽ നിന്ന് ലോസ് ഏഞ്ചൽസിലേക്കുള്ള വൺ വേ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ആണ് ഞാൻ ട്രാവൽ ഏജൻസി അല്ലെങ്കിൽ എയർലൈൻ ഉപപോക്ത്ര സേവനത്തെ വിളിച്ചത് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊന്നും അറിയില്ല അപ്പോൾ ഇതൊന്ന് നോക്കണം എനിക്ക് ഈ ഇതൊന്ന് ബുക്ക് ചെയ്യണം ഇതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ വിളിച്ചത് ഈ ന്യൂയോർക്കിൽനിന്ന് ലോസ് ഏഞ്ചൽസിലേക്ക് ഒരു ഇത് നിങ്ങളെനിക്കൊന്ന് ബുക്ക് ചെയ്ത് തരണം അത് അതിൻ്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ഒന്ന് നോക്കിയിട്ട് ഒന്ന് പറഞ്ഞ് തരായിരുന്നെങ്കിൽ അത്രയും നല്ലതായിരുന്നേനെ അപ്പോൾ ഇന്ന് തന്നെ ബുക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കോൺടാക്ട് ചെയ്തത് ലോസ് ഏഞ്ചൽസിലേക്കാണ് പോവേണ്ടത്